ഇന്ത്യയിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക ലോകാത്ഭുതങ്ങൾ ലോകാത്ഭുതം ആ ലോകാത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഒന്നായ താജ്മഹൽ ഉണ്ട് ആഗ്രയിലാണത് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ എന്ന് പറയുന്നൊരു രാജാവ് തൻ്റെ ഭാര്യയായ മുംതാസ് മരിച്ചു പോയ ഭാര്യയായ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു ഇതാണ് താജ്മഹൽ കാണാൻ വളരെ മനോഹരാണ് അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് കാണണം എന്നാണ് പിന്നെ ഹംപിയാണെങ്കിൽ അത് കർണാടകലയിലാണ് ഹംപി അതൊരു വിജയ നഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് എന്നാണ് അറിയപ്പെടുന്നത് പണ്ടു കാലത്ത് രാജ ഭരണൊക്കെ ആയിരുന്നല്ലോ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അവശിഷ്ടങ്ങളാണ് അതൊക്കെ കാണുന്നത് എത്രയോ മനോഹരമാണ് നമുക്ക് മറ്റൊരു ഒരു ഉന്മേഷം തരും പിന്നെ ഗോമതേശ്വര ഒരു ശിലയാണത് പന്ത്രണ്ടു വർഷത്തിലൊരിക്കലുണ്ടാകുന്ന മഹാമസ്തകാ അഭിഷേക ഉത്സവത്തിൽ മാത്രം അത് വെട്ടിത്തിളങ്ങി കുങ്കുമത്തിലും പാലിലൊക്കെ ചേർത്ത് അതിനെ പൂജിക്കുന്നതൊക്കെ കാണാൻ പറ്റും ആ സമയത്ത് പോവുമ്പോൾ അത്രയും നല്ലത് പിന്നെ നളന്ദ പട്നയിലാണത് പഴക്കം ചെന്നൊരു സർവകലാശാലയുടെ ഒരു ഇതാണത് അത് കാണുമ്പോൾ നമുക്ക് പഴയകാല ഓർമകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇതൊക്കെയാണ് ഇതിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ രാജസ്ഥാനിലെ മരുഭൂമി അതൊക്കെ കാണുമ്പം തന്നെയൊരു പ്രത്യേക ഒരു ഒരു ഫീലാണ് പിന്നെ കേരളത്തിലാണെങ്കിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പൈതൽമല ഒരുപാട് ഫോർട്ടുകളുള്ള നാടാണ് കേരളം ബ്രിട്ടീഷുകാർ പണ്ടുണ്ടാക്കി വെച്ച സാധനങ്ങൾ പിന്നെ പൈതെൽ മലയൊക്കെ ആണങ്കിൽ അങ്ങ് ആകാശത്തിൻ്റെ തട്ടുന്നു താഴേക്ക് നോക്കുന്നൊരു ഫീലാണ് മേഘങ്ങളൊക്കെ താഴെയായിരിവുക അതൊക്കെ വളരെ മനോഹരമാണ് കാണാൻ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിലൊന്നാണ് കേരളത്തിലെ കാണാൻ വളരെ മനോഹരമാണ് പിന്നെ മൂന്നാറ് ആലപ്പുഴയിലെ പിന്നെ കായലുകൾ വേമ്പനാട്ടു കായൽ കുട്ടനാട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് അതൊക്കെ